ആ ചേട്ടാ ഹലോ ചേട്ടാ അത് എന്താണ് ഹോട്ടൽ പാരഗണല്ലേ ആ എനിക്ക് കുറച്ച് ഫുഡ് ഓഡർ ചെയ്യാൻ വേണ്ടീട്ടായിരുന്നു ആ എന്താ ഇവിടെ സ്പെഷ്യൽ ഫുഡ്ഡെന്താള്ളത് ബിരിയാണിയാണല്ലേ അതെ അല്ലേ ആ ലോകത്തിലേയ്ക്കും ഏറ്റോം ടോപ്പ് ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലാണെന്ന് കേട്ടിട്ടുണ്ട് അതെ അല്ലേ ഞങ്ങളൊരു പത്ത് പേർക്ക് വേണം ബിരിയാണി ഇപ്പെങ്ങനെ ഞങ്ങളങ്ങട്ട് വരാനാണ് പ്ലാന് പക്ഷേ ഏകദേശം എത്ര മണിയാവുമ്പം വരണം ഇതിന് ഇതപ്പം തിരക്കുണ്ടാവോ ഏകദേശം വെയിറ്റിങ്ങുണ്ടാവോല്ലേ അര മണിക്കൂറല്ലേ പിന്നെന്തൊക്കെയാണ് ഫുഡ്ഡൊള്ളതവിടെ സ്പെഷ്യലായിട്ട് ഉണ്ട് പൊറോട്ടുണ്ടല്ലേ മെയ്നായിട്ട് നിങ്ങളുടെ അത് ബിരിയാണി തന്നാണ്

ബിരിയാണി ബിരിയാണി സ്പെഷ്യലല്ലേ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫേമസാണെന്ന് കേട്ടിട്ടുണ്ട് ഓരോ ഫുഡ്ഡും എത്ര ചാർജ് ചെയ്യണത് ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ടൂ ഹണ്ട്രഡാ വരുന്നതല്ലേ ക്വാണ്ടിറ്റിയുണ്ടാവോ

ഓക്കെ ഓക്കെ ഞാനിപ്പട്ത്തൊരു ഹോട്ടല് കഴിച്ചു എയർലൈൻസ്ന്ന് പറഞ്ഞൊരു ഹോട്ടൽന്ന് പക്ഷേ അവിടൊക്കെ ക്വാണ്ടിറ്റി കുറവായിരുന്നു

അല്ലേ നല്ല ഫുഡ്ഡാണൊള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്സ് പറഞ്ഞിട്ടുണ്ട് നല്ല ഫുഡാണ് അത്യാശ്യം നല്ല സെറ്റാണ് പറഞ്ഞിട്ടുണ്ട്

ആ ഞങ്ങളെന്തായാലൊരു ഏഴ് മണിയാവുമ്പോൾ വരാം അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടേബിളൊന്ന് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റോ ഒരു പത്താൾക്ക് വേണ്ടീട്ട് അഡ്വാൻസ്സ് ചെയ്യേണ്ടി വെരൂല്ലേപ്പോൾ റിസർവ് ചെയ്യേണ്ടപ്പം ടേബിളപ്പം അഡ്വാൻസ്സ് വേണ്ടി വരില്ലേ ഓക്കെ ഓക്കെ

എന്നാൽ ശരി